പണ്ട് ഞങ്ങൾ സ്കൂളിൽ പഠിച്ചോണ്ടിരുന്ന സമയത്ത് അക്ഷരങ്ങളുടെ അഷരമാലകൾക്കുള്ള വ്യത്യാസങ്ങൾ പഴയതായിരുന്നു പഴയതായിരുന്നു നമുക്ക് എഴ്താനുളിയെ ഇപ്പം കുനിപ്പും ബാക്കിയുള്ള കാര്യങ്ങളുമെല്ലാം വന്ന് കഴിഞ്ഞിട്ട് പിന്നെ അതിപ്പം ഇത് ഇതിപ്പോഴത്തെ ജനതയ്ക്ക് അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറയ്ക്ക് വളരെ അധികം ഈസിയാണ് പക്ഷേ പഴയ തലമുറ അത് അത് കുറെ പ്രയാസപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഒരു തരത്തിൽ നല്ലതാണ് കാര്യം ഇനിയിപ്പം പിന്നെ കായ് കൂ എന്നുള്ളതിന് പകരം നമ്മൾ പണ്ട് ഒത്തിരി കുനിപ്പുകൾ വരും ഇപ്പം ക എഴുതി കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തൊരു ഇതുമിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടന്ന് എഴുതാം അപ്പം ലിപികളിലുള്ള മാറ്റങ്ങൾ ഭയങ്കരമായിട്ട് വന്നു അത് ഇന്നത്തെ തലമുറ വളരെ അധികം അത് അക്സെപ്റ്റെ ചെയ്ത് അത് പിന്നെ അതിനെ അവർ സ്വീകരിക്കുകേം ചെയ്തിട്ടുണ്ട് അപ്പം ഈ ജാതി പിന്നെ വികാസം ഇപ്പോൾ വളരെ അധികം പ്രയോജനം ഉണ്ടായിട്ട് അച്ചടിയിലും പഴയ പത്രങ്ങൾ നോക്കുവാണെങ്കിലും ഇപ്പോഴത്തെ പത്രങ്ങൾ നോക്കുവാണ് ആ മലയാള ഭാഷയിലുണ്ടായ വികാസം ഭയങ്കരമാണ് ഈ മാറ്റങ്ങളാണ് ഏറ്റോം കൂടുതലായിട്ട് വന്നിട്ടുള്ളത് പിന്നെ ബുക്കുകളൊക്കെയാണെങ്കിൽ തന്നെയും പുതിയ പുതിയ ബുക്കുകൾ വരുന്ന പുതിയ ഭാഷ അച്ചടി ഭാഷയിലോട്ട് വരുന്നു പക്ഷേ ഇതിലൊരു ബുദ്ധിമുട്ട് ആദ്യത്തെ ഉണ്ടായിരുന്ന പ്രസ്സുകൾക്കെല്ലാം ഇപ്പം അത് വളരെ മാറ്റി ഇപ്പം എല്ലാം അത് കമ്പ്യൂട്ടറൈസ്ഡായത് കൊണ്ട് അയിൻ്റെതായിട്ടുള്ള ഒരു വലിയൊരു പ്രശ്നങ്ങൾ വരുന്നില്ല ആ അത്കൊണ്ട് നമുക്ക് ഈ മാറ്റം അല്ലെ ഈ വികാസം എപ്പോഴും നമുക്ക് ഉൾക്കൊള്ളാവുന്ന ഒരു കാര്യമാണ് ഈ ഈ മലയാള ഭാഷയിലുള്ള വിത്യാസങ്ങളെന്ന് പറയുന്നത് അതാണ് അച്ചടി ഭാഷയിലുള്ള വ്യത്യാസങ്ങളാണ് ഏറ്റോം കൂടുതൽ വന്നിട്ടുള്ളത് അതേ അതിലുള്ള വ്യത്യാസങ്ങൾ എല്ലാവരുമത് മനസ്സിലാക്കി ഇന്നത്തെ പത്രങ്ങളാണെങ്കിലും മാധ്യമങ്ങളാണെങ്കിലും മാസികകളാണേലും എല്ലാവിധ പ്രസിദ്ധീകരണങ്ങളിലും ഈ ജാതി കാര്യങ്ങളാണ് അല്ലെങ്കിലീ ഈ പുതിയ ഭാഷയിലുണ്ടായ ഇതാണ് പിന്നെ എല്ലാ ഓരോ രാജ്യത്തിലും നമ്മുടെ ഭാഷയെന്ന് പറയുന്നത് മലയാള ഭാഷയെന്ന് പറയുന്നത് മലയാളത്തെ വളരെ അധികം പ്രസിദ്ധിയാർജിച്ച ഒരു ലാംഗ്വേജാണ് ആ മലയാള ഭാഷയിൽ പക്ഷേ ഇന്ന് മലയാള ഭാഷയ്ക്ക് വന്നിട്ടുള്ള മാറ്റമെന്ന് പറയുന്നത് ഇന്ന് മലയാള ഭാഷ മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു വളരെ അധികം ഒരു എക്സ്പോഷറ് അല്ലെങ്കിലൊരു അവർക്ക് അവരെ അവർക്ക് തന്നത്താനെ മനസ്സിലാക്കാത്തൊരു കാര്യമാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് മലയാള ഭാഷ കൊണ്ട് മാത്രമുള്ള ഒരു ആഗ്രഹിച്ച് കൊണ്ടുള്ള ഒരു പ്രവണത ഒരിക്കലും നല്ലതല്ല കാര്യംന്നെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പം നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചാലെ വല്ലോം നമുക്ക് വലിയ അതാ അതായിത് എന്തെങ്കിലുമൊരു നേട്ടം നേടാനായിട്ട് സാധിക്കുവുള്ളു കാര്യംന്നെച്ച് കഴിഞ്ഞാൽ എല്ലാ തലങ്ങളിലും ഇംഗ്ലീഷൊന്നും ഇന്ന് സർക്കാരും ഒത്തിരി അധികാരത്തിൽ വന്ന് കഴിഞ്ഞ് ശേഷമുള്ള ഭാഷ മലയാളീകരിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് കുട്ടികൾക്ക് അവർ പഠിക്കുന്ന സ്കൂളുകളിൽ നിന്ന് കിട്ടുന്നുള്ള വിദ്യാഭ്യാസം ഇപ്പോഴും ഇംഗ്ലീഷിലാണ് അപ്പം മലയാള ഭാഷയെ ഇന്നത്തെ തലമുറ ഏകദേശം മറന്ന് കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്തിരുന്നാലും നമ്മുടെ കുട്ടികളെ മലയാള ഭാഷ മറക്കാനായിട്ട് ഒരിക്കലും അനുവദിക്കരുത് കാര്യം മലയാള ഭാഷയിൽ ഒത്തിരി അധികം സാഹിത്യ സൃഷ്ടികൾ നടന്നിട്ടുണ്ട് ഇന്നും നമ്മൾ നോക്കുവാണെങ്കിൽ ലോകോത്തരമായിട്ടുള്ള സിനിമകളിലും മലയാളം ഇടം പിടിച്ചിട്ടുണ്ട് അത് തന്നെ നല്ല നല്ലൊരു നിലവാരം പുലർത്തിക്കൊണ്ട് പോവുകയാണ് മലയാള സിനിമകളും മലയാള പിന്നെ സാഹിത്യങ്ങളും എല്ലാം വളരെ അധികം വിലയേറിയ സംഭാവനയായിട്ടാണ് ഇന്നും ലോകത്തിൽ ലോകത്തിലെ ജനത മലയാള ഭാഷയെ കാണുന്നത് ഈ മാറ്റങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾക്ക് അത് നമ്മുടെ ഭാഷ നമ്മുടെ ഭാവി തലമുറയെ മലയാള ഭാഷ ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ശ്രമം നമ്മൾ നടത്തണം